ഏഴ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുപത്തി എട്ട് എൺപത്തി ഏഴ് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ് ഒമ്പത് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എഴുനൂറ്റി പത്ത് രണ്ട് ലക്ഷത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പിന്നെ എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തി ഒന്ന്